ഹലോ ശ്രീ നാരായണ ഹോട്ടലല്ലേ ഞാൻ മുമ്പ് ഇവിടുന്ന് ഒരു മസാല ദോശ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ അതെനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു ആ ആ ഓർഡർ തന്നെ റിപ്പീറ്റ് ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട് അത് മസാല ദോശയില് ഉരുളക്കിഴങ്ങ് സ്റ്റഫൊക്കെ വെച്ചിട്ട് അതിൻ്റെ കൂടെ രണ്ടുതരം ചട്നി ഒക്കെ ഉണ്ടായിരുന്നു ആ അതെനിക്ക് നന്നായി ഇഷ്ടമായി അപ്പോൾ എനിക്ക് വീണ്ടും ആ ഓർഡർ ചെയ്യാൻ വേണ്ടി താല്പര്യമുണ്ട് ആ ഓക്കേ താങ്ക് യൂ